എൻറ്റെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ആയിട്ട് മേടിച്ച പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേഷ്യൽ ക്രീം ആണ് മുഖത്ത് തേക്കുന്ന കരിവാളിപ്പെല്ലാം പോവാൻ വേണ്ടി തേക്കുന്ന ഒരു ഫേഷ്യൽ ക്രീം ആണ് അപ്പോൾ സൊളാനോടെ കമ്പനി അപ്പോൾ സൊളാനോ എന്ന് പറഞ്ഞ കമ്പനി അപ്പോൾ അതിൻ്റെ ഫേഷ്യൽ ക്രീം എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം ആദ്യം മുഖത്തൊക്കെ ഉണ്ടായിരുന്നൊരു കരുവാളിപ്പ് ഇതിനോടകം എനിക്ക് നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടീട്ടുണ്ട് അപ്പോൾ ഈ ഫേഷ്യൽ ക്രീം എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൊലാനോടെ ഫേഷ്യൽ ക്രീം എനിക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് തന്നിരിക്കുന്നത്